നിങ്ങളുടെ ഗ്രാമീണ സമുദായത്തിലെ പരമ്പരാഗതമായി നൃത്ത രൂപങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഞങ്ങളുടെ ഗ്രാമീണ മേഖലയിലുള്ള പരമ്പരാഗത നൃത്ത രൂപങ്ങളെ സംരക്ഷിക്കണം കാരണം ഇന്ന് നമ്മളുടെ വളർന്ന് വരുന്ന ചെറു തലമുറക്കാരോട് പഴയ നൃത്ത രൂപങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാർഗ്ഗംകളി തിരുവാതിര തിരുവാതിരയല്ല മാർഗ്ഗംകളി പ്രധാനമായിട്ട് അങ്ങനെയുള്ള ചാക്യാർ കുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അതെന്താണ് എന്ന് എൻ്റെ പിള്ളേരുൾപ്പടെ എന്നോട് തിരി തിരിച്ച് ചോദിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് നാം കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള കലാരൂപങ്ങളെയെല്ലാം വരും തലമുറകൾ സംരക്ഷിക്കണം ഇന്ന് വളരെ വലിയ സിനിമാറ്റിക് ഡാൻസ് ചാക്യ എന്നാ സിനിമാറ്റിക് ഡാൻസ് അല്ലെങ്കിൽ മോഹിനിയാട്ടം കുച്ചിപ്പടിന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ആ പിള്ളേരോട് ഡാൻസ് കളിക്കുന്ന കുട്ടികള് തന്നെയായിരിക്കും അവരോട് ഒരു മാർഗ്ഗം കളിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിലൊരു ചവിട്ട് നാടകത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയുള്ള പാരമ്പര്യമായിട്ട് പാരമ്പരാഗത കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കറിയില്ല അതെന്താണ് അത് ഏതാണ് അതെന്തിനുവേണ്ടിയാണ് എന്നൊന്നും അവർക്കറിയില്ല അതുകൊണ്ട് പരമ്പരാഗത നൃത്തരൂപങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മുടെ നാടുകളിൽ ഒരു പള്ളിയിലൊരു പെരുന്നാള് വന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്പലത്തിലൊരു ഉത്സവങ്ങളും വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഗാനമേളയും അല്ലെങ്കിൽ സ്റ്റേജ് ഷോകളൊക്കെയായിട്ട് പോകുമ്പോൾ എവിടെലുമൊക്കെ എന്നെങ്കിലുമൊക്കെയൊന്ന് ഇങ്ങനെ പാരമ്പര്യ നൃത്ത രൂപങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്കും മുതിർന്നവർക്കും മനസ്സിലാകാനും നമ്മുടെ നാടുകളില് പ്രായവായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഒത്തിരിയുണ്ട് അവരൊക്കെ ഇതൊക്കെ കാണൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ഇന്നത്തെ കാലത്ത് ഈ സിനിമാറ്റിക് ഡാൻസും അല്ലെങ്കിൽ മറ്റുള്ള ഡാൻസുകള് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല അപ്പം അവർക്ക് ഇങ്ങനെയുള്ള പ പഴയ കാല കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതുകൊണ്ട് വഞ്ചിപ്പാട്ട് അങ്ങനെയുള്ള പ കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അവരത് ആസ്വദിക്കുകയും ചെയ്യും അപ്പം പഴയ തലമുറയിലുള്ള ആൾക്കാരൊക്കെ പള്ളികളിലൊക്കെ പാരിഷ് കൗൺസില് യോഗം പെരുന്നാളിനൊക്കെ പാരിഷ് കൗൺസില് യോഗം വിളിക്കും എന്നിട്ട് അവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വല്ല പഴയ കാല നാടകങ്ങളോ അല്ലെങ്കിൽ പഴയ കാല പ്രോഗ്രാമുകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് അവതരിപ്പിക്കുവോ ഇപ്പത്തെ ഈ പുതിയ ഗാനമേളയും സിനിമാറ്റിക് ഡാൻസൊക്കെ ഒന്ന് ഒഴിവാക്കി സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഒന്ന് ഒഴിവാക്കി അതൊക്കെ ഒന്ന് അവതരിപ്പിക്കുവോ എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പത്തെ തലമുറയോട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവരാ ആ ഭാഗത്തോട്ട് പോലും വരികയില്ല എന്നാൽ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ പള്ളിയിൽ പെരുന്നാളിന് നാടകം വെച്ചു ആരും തന്നെ നാടകത്തിനില്ലായിരുന്നു നാടകം കാണാനും നാടകം ആസ്വദിക്കാനും ആർക്കും ഒരു താല്പര്യവും ഇല്ലായിരുന്നു വളരെ ആള് കുറവായിരുന്നു കാരണമത് നാടകവാണ് അതേ സമയം ഒരു ഗാനമേളയോ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ആയിരുന്നെങ്കിൽ നിരവധി ആളുകള് അതിൽ പങ്കെടുക്കുകയും കാണുകയൊക്കെ ചെയ്യുവായിരുന്നു അപ്പം ഇനിയും വരുന്ന തലമുറയിലുള്ളവരെ ഇപ്പളേ നമ്മളിങ്ങനെ ചെറിയ ചെറിയ പാരമ്പര്യ കലാരൂപങ്ങളൊക്കെ പരിചയപ്പെടുത്തി അവർക്കതിന് അവരെക്കൊണ്ട് അതൊക്കെ അവതരിപ്പിച്ച് അത് അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് നൽകി അവരെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് അവരത് ചെയ്യും അതിനവർക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ പാരമ്പര്യ കലാരൂപങ്ങള് നൃത്ത രൂപങ്ങള് എല്ലാം നമ്മള് സംരക്ഷിക്കണം നമ്മളതിനു വേണ്ടി തയ്യാറാകണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞങ്ങളുടെ ഇടവകയില് പെരുന്നാളിന് കഴിഞ്ഞ വർഷം വളരെ മനോഹരമായിട്ടൊരു വഞ്ചിപ്പാട്ട് അവര് നടത്തുകയുണ്ടായി എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു അതൊരു പഴയകാല നൃത്തരൂപമായിട്ടാണ് അവരതാവിഷ്കരിച്ചത് ഒത്തിരിപ്പേരത് കാണുകയും ചെയ്തു പഴയ അതായത് മുൻ തലമുറയിലെ വളരെ പ്രായമായ എൺമ്പത്തഞ്ചും അറുപതും എഴുപത്തഞ്ചും എൺമ്പത്തഞ്ചും തൊണ്ണൂറും വയസ്സായ അപ്പച്ചന്മാരും അമ്മച്ചിന്മാരൊക്കെ കൂടി തന്നെയാണ് ആ പരിപാടി അന്ന് അവതരിപ്പിച്ചത് വളരെ ഭംഗിയായിരുന്നു കുട്ടി കുഞ്ഞു കുട്ടികള് വരെ അത് നോക്കി ആസ്വദിച്ച് ഇരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അപ്പം ഇനിയും ഇങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ കൊണ്ട് വന്ന് കഴിഞ്ഞാൽ നൃത്തരൂപങ്ങളൊക്കെ കൊണ്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കുട്ടികളൊക്കെ അത് ശ്രദ്ധിക്കും അത് ആസ്വദിക്കും അതുകൊണ്ട് ഗ്രാമീണ സമുദായത്തിലെ പരമ്പരാഗത നൃത്തരൂപങ്ങളൊക്കെ കൊണ്ടുവരുന്നതും സംരക്ഷിക്കുന്നതും ഒക്കെ നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം